പരമ്പരാഗത രൂപമായ പേന പെൻസിലെന്നിവ ഉപയോഗിച്ച് പേപ്പറിലെഴുതാനാണെനിക്കു കൂടുതലിഷ്ടം കാരണം അതിനകത്തൊരു നമ്മുടേതായ ഒരു കലകൂടതിനകത്തുണ്ടാകും അക്ഷരത്തിനൊരു കലയുണ്ട് ഓരോ അക്ഷരത്തിനും അതനുസരിച്ച് അത് പ്രകടിപ്പിക്കാനും ഒരേ ഭംഗിയായിട്ട് എഴ് അക്ഷരത്തെ ഇല്ലാതെ എഴുതാനുമൊക്കെ നല്ല ഭംഗിയായിട്ടെഴുതാൻ പേനയും പേപ്പറുമാണുപയോഗിക്കുന്നത് പക്ഷെ മൊബൈലിൽ ടൈപ്പ് ചെയ്യാനും എനിക്കു താത്പര്യക്കുറവില്ല കാരണം അതിനകത്തുള്ള വ്യത്യാസമെന്നു പറഞ്ഞാൽ മൊബൈലിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ വെച്ചു തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തു വീണ്ടും ടൈപ്പ് ചെയ്തു കൊണ്ടു പോകാനൊക്കില്ല മറ്റെ പിശകുണ്ടാകില്ല അതു പേപ്പറിലാണ് നമ്മളെഴുതുന്നതെങ്കിൽ പേപ്പറിലൊരു എന്തെങ്കിലുമൊരു പേരെഴുതി കഴിഞ്ഞാൽ ആ പേരെഴുതുന്നതിൽ അക്ഷരത്തെറ്റുണ്ടായാൽ അതിനെ വെട്ടിയിട്ട് അല്ലെങ്കിലിപ്പം പെൻസിൽ പോലെയുള്ള ആണെങ്കിൽ റബ്ബർ വെച്ചു മായിച്ചിട്ടു മാത്രമെ എഴുതാൻ പറ്റുകയുള്ളു പക്ഷെ ഇതിലങ്ങനെയല്ല കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു കൊണ്ടുപോകാനിഷ്ടമുണ്ടാകും പിന്നെ എല്ലാം ഒരേ ടൈപ്പായിരിക്കും അതിന്റെ മിക്കവാറും അതിന്റെ ഫോർമാറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷെ അതു രണ്ടും ശരിയാണ് മറ്റെ കൂടുതൽ ഭംഗി പിന്നെ പേനയിലും പേപ്പറിലും ഉപയോഗിച്ചു ചെയ്യുന്നതാണ് പക്ഷെ അതിനു വോളിയം നമ്മുടെ മേശപ്പുറത്തു കൂടിക്കൊണ്ടിരിക്കും മറ്റേത് നമ്മളുടെ ഉള്ളം കൈക്കകത്ത് എത്രയോ വോളിയം ബുക്കുകൾ ഒതുങ്ങി നിൽക്കും അങ്ങനൊരു ഗുണം കൂടി ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്